ഹലോ ആ ഇത് ആ ഇതേ ഞാനാണ് ഞാനാണെടീ നിന്റെ കെട്ടിയവനാണ് കേട്ടോ ആ ആ ആ ഞാനേ നീയെന്നാ വീട്ടിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേ ശരിക്കും

അന്നല്ലെ നിങ്ങൾ ആ അമ്മയുടെ ഒരു പരാതി വന്നല്ലോ അമ്മയെ അന്വേഷിക്കുന്നില്ല അമ്മയ്ക്ക് അങ്ങനെ അങ്ങനെയെന്നെല്ലാം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറയുന്നു എന്റമ്മയെ അന്വേഷിക്കുന്നില്ല അമ്മയ്ക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല വെള്ളം കുളിക്കാൻ കുളിക്കാൻ കുളിക്കാൻ കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കിക്കൊടുക്കുന്നില്ല അമ്മയ്ക്ക് നടക്കാൻ മേലാത്തതുകൊണ്ടല്ലേ പ്രായമാകുമ്പോഴല്ലേ നമ്മളതൊക്കെ ശരിയായിട്ട് കൊടുക്കേണ്ടത് നമ്മളുമൊക്കെ പ്രായം

അതെല്ലാം നടക്കണ്ടേ എന്നാലും എന്നാലും അങ്ങനെയല്ലല്ലോ ഒരു ഒരു ഒരു മകളെന്നുള്ള നിലയിൾ അതിവന്റെ കാര്യങ്ങൾ നീ കൈകാര്യം ചെയ്യണ്ടേ ഏഹ് ആ ആ അമ്മയെ ആ അമ്മയ്ക്കെടുക്കാനുള്ളത് എടുത്ത് അം ആ ആ ആ എന്തുപറഞ്ഞാൽ പിന്നെ നടക്കാൻ മേലാത്ത അമ്മയുടെയടുത്ത് നടന്ന് പിന്നേയും വീണെങ്കിൽ പിന്നേയുമത് ബുദ്ധിമുട്ടാകുകയില്ലേ നടക്കാൻ മേലാത്തയൊണ്ടെങ്കിൽ അത് കൈ കൈ പാത്രം കൈകഴുകാൻ വെള്ളം അവിടെക്കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്കാ പാത്രങ്ങൾ പാത്രം

ആ നീയില്ലാത്തപ്പം മക്കളെ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ പാടില്ലേ അ ആ അതാ നല്ലത് പള്ളിക്കൂടത്തിൽ പോവുമ്പം ഉള്ളത് കൊടുത്താൽ മതി പള്ളിക്കൂടത്തിൽപ്പോയി ഇല്ലാത്തപ്പം വീട്ടിലുള്ളപ്പം എടുത്ത് കൊടുക്കാമല്ലോ അല്ലേൽ ഇപ്പം അമ്മ അമ്മ അമ്മയൊ അമ്മ അമ്മയിരിക്കുന്നെവിടെയെന്ന് വെച്ചാൽ അവിടെ പിന്നെ പാത്രം പാത്രത്തില് ഭഷണമൊക്കെ വിളമ്പിയൊക്കെ വെച്ചിട്ട് പോയാൽപ്പോരെ അപ്പം ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുമോ നമ്മളിപ്പം എളുപ്പമെന്ന് പരാതി വരുന്നുണ്ട് അതുകൊണ്ടാ ഞാൻ പറേയുന്നത് എനിക്കിപ്പം അവിടുന്നിവിടെ വന്ന് അമ്മയുടെയിഷ്ടത്തിനു നിൽക്കാൻ പറ്റുമോ അമ്മയ്ക്ക് മേലാത്തതുകൊണ്ടല്ലേ അതെ

ആ അമ്മയ്ക്ക് മേലാത്തതുകൊണ്ടല്ലേ അമ്മയിത് അമ്മയിങ്ങോട്ട് പരാതി പറഞ്ഞത് അമ്മ മകനോടല്ലേ പരാതി പറയത്തുളളൂ അതുകൊണ്ട് നീയത് ശ്രദ്ധിക്കണം കേട്ടോ ആ ആണന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാമല്ലോ നിന്റെ സ്വഭാവം എനിക്ക് നിന്റെ സ്വഭാവം എനിക്കറിയാമല്ലോ നീയധികമൊന്നും ഇങ്ങോട്ട് സംസാരിക്കേണ്ട നീ ചെയ്യാവുന്നപോലെ ചെയ്തേച്ചാൽ മതി കേട്ടോ ആ എന്നാൽ ശരി വെക്കുവാ